എനിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചെടികളും വളർത്താൻ ഭയങ്കര താല്പര്യോള്ളരാളാണ് അപ്പം പൂക്കളാണെങ്കിൽ പൂക്കളെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിപ്പോൾ ഓണത്തിനൊക്കെ നല്ല രീതിയിൽ പൂക്കളം ഇടാൻ വേണ്ടീട്ട് പൂക്കളൊക്കെ വളർത്തുവാണെങ്കിൽ നമ്മളിപ്പോൾ പൊതുവെ പുറത്ത് പോയിട്ടും അപ്പം ചെണ്ടുമല്ലി കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഗുണ്ടിൽ പെട്ടേന്ന് വന്നതൊക്കേ വാങ്ങും അങ്ങനക്കെ ഇടെണ്ട ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്ന ഒരു ചെടിയാണെങ്കിൽ നമ്മൾ സ്വന്തം പറിക്കുവാണെങ്കിൽ പോലും നമ്മൾ ആരോടും ചോദിക്കണ്ട അങ്ങനത്തെ ഒരു കാര്യം ഇല്ല ഇപ്പം പൂക്കളക്കെ വളർത്താൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് പിന്നെ ഈ ഒരു ചെടി നമ്മളിപ്പോൾ പൂവ് വെച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് വന്നതിൻറ്റൊരു പൂവ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ അതായത് ഈ ജന്മ ജന്മം തൊട്ട് അതിൻ്റെ ആ ഒടുക്കം വരെ നമ്മളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഴങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കേ എനിക്ക് ഭയങ്കര താൽപര്യാണ് വെക്കാൻ വേണ്ടീട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതൽ നമ്മൾ പുറമെന്നാണ് പഴങ്ങളും കാര്യങ്ങളും അതായത് ഓരോ ഫലങ്ങളും വാങ്ങുന്നത് അപ്പോൾ അത് നമ്മൾ വീട്ടീന്ന് തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫലങ്ങളക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് പച്ചക്കറി നമുക്ക് പൊതുവേ നമ്മൾ കടകളിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ വെക്കുവാണെങ്കിൽ നല്ല ജൈവ പച്ചക്കറി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും നമുക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല അപ്പതൊക്കെ വെക്കാനാണ് എനിക്ക് ഭയങ്കര താല്പര്യം